പ്രപഞ്ചത്തെയും അതിൻ്റെ നിഗുഢതകളെയും കുറിച്ച് ഏറ്റവും ആകർഷകമായി തോന്നിയ ത് അതിൻ്റെ പക്ഷികളെയും പൂവുകളേയും തന്നെയാണ് എന്നും പ്രപഞ്ചത്തെ പ്രപഞ്ചമാക്കുന്നത് പ്രപഞ്ചത്തിലെ പക്ഷികളും പൂക്കളും ഇലകളും മാൻപേടകളും എല്ലാമാണ് ഇവരാണ് പ്രപഞ്ചത്തെ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള ഒന്നാക്കി മാറ്റുന്നത് എന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് പ്രപഞ്ചത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന എല്ലാ വിധ വസ്തുക്കളും പക്ഷികളായിക്കോട്ടെ പൂക്കളായിക്കോട്ടെ ഇലകളായിക്കോട്ടെ മാൻപേടകളായിക്കൊട്ടെ പുല്ലുകളായിക്കോട്ടെ ഇവയെല്ലാമാണ് നമ്മളുടെ ഒരു സമാധാനമായ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കാരണം നമ്മൾ എത്ര വിഷമിച്ചിരിക്കുകയാണെങ്കിലും എത്ര സമാധാനം കെട്ട് ഇരിക്കുകയാണെങ്കിലും നമ്മളൊന്ന് പ്രപഞ്ചത്തെ നോക്കി ഇവരെയൊക്കൊന്ന് നോക്കി പുഞ്ചിരിച്ചാൽ കാണാൻ മാറാവുന്ന പ്രശ്നങ്ങളെ നമുക്ക് ഉള്ളു എന്ന് വിശ്വസിക്കുന്നൊരാളാണ് ഞാൻ ഞാനെത്ര ഡൌൺ ആയി ഇരിക്കുകയാണെങ്കിലും എത്ര മാനസികമായിട്ട് തളർന്ന് ഇരിക്കുകയാണെങ്കിലും എനിക്കൊന്ന് പ്രപഞ്ചത്തിൽ പോയിട്ട് പ്രപഞ്ചത്തെ നോക്കി ഈ പൂക്കളെയും എല്ലാവരെയും ഇലകളെയും ഒക്കെ ഒന്ന് നോക്കിയാൽ അവര് എന്നെ നോക്കി ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് അത് തന്നെയാണ് പ്രപഞ്ചത്തിനോട് എനിക്ക് ഇത്ര ഇഷ്ടം തോന്നാനുള്ള ഏറ്റവും വലിയ കാരണവും അത് തന്നെയാണ് എന്നും രാവിലെ എണീറ്റാൽ ഉടൻ ഈ പ്രപഞ്ചത്തെയൊക്കെ നോക്കി നിൽക്കുന്ന ഒരാൾക്ക് ആ അയാളുടെ ജീവിതത്തിൽ വലിയ ചു പ്രശ്നങ്ങളൊന്നുമില്ലാതെ കഴിഞ്ഞ് പോകാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം നമ്മുടെ പ്രപഞ്ചത്തിൽ ഉള്ള എല്ലാവരും നമ്മളെ എന്നും നോക്കി പുഞ്ചിരിക്കുകയും നമ്മൾ പുഞ്ചിരിക്കുകയും ചെയ്യുന്നു ഇവരൊക്കെയാണ് നമ്മുടെ സമാധാനമായൊരു ജീവിതത്തില് അല്ലെങ്കിൽ സന്തോഷകരമായോര് ജീവിതത്തിന് ഏറ്റവും വലിയൊരു കാരണവും ഇവരെ എന്നും നില നിർത്തി കൊണ്ട് വരാൻ നമ്മൾ മനുഷ്യർക്കുണ്ട് ഏറ്റവും വലിയ പങ്ക് നമ്മളിവരെ നന്നായി നോക്കിയാൽ അവര് നമ്മളെ നന്നായി നോക്കും